എനിക്ക് ഞാനെ ഒരു അദ്ധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നതു കൊണ്ടു തന്നെ എനിക്ക് പലപ്പോഴും നമ്മള് പാഠ പുസ്തകങ്ങളിലുള്ള ലാങ്ങ്വേജായ ഇംഗ്ലീഷില് നിന്ന് ഇംഗ്ലീഷാണ് എന്റെ മാധ്യമ എന്റെ ഞാന് പഠിപ്പിക്കുന്ന വിഷ് വിഷയം അതുകൊണ്ടുതന്നെ നമുക്കതിന്റെ എല്ലാം ഇംഗ്ലീഷില് തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കില് കുട്ടികള്ക്ക് മനസ്സിലാകാതെ വരികയും അതു കൊണ്ട് അവര് പഠിച്ചതു കൊണ്ട് പ്രയോജനം ഇല്ലാതാകുകയും ചെയ്യുന്നു അതു കൊണ്ട് ഇംഗ്ലീഷില് നിന്ന് മലയാളത്തിലേക്ക് അതുപോലെ മലയാള ഭാഷയില് നിന്ന് മറ്റു ഭാഷകളിലുമൊക്കെ വിവര്ത്തനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കുട്ടികള് അങ്ങനെ ചെയ്തെങ്കില് മാത്രമേ കുട്ടികള്ക്ക് അവരുടെ അറിവുകൾ വര്ദ്ധിപ്പിക്കുവാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നു മനസ്സിലാക്കി അതു പഠിക്കുവാനും കഴിയൂ എന്നുള്ളതാണ് സത്യം